അതെ കേൾക്കാം പറയൂ അതെ ഓ ഓക്കെ ഓക്കെ എപ്പോൾ മുതലാണ് ഇത് തുടങ്ങിയത് നിങ്ങൾക്ക് ഓക്കെ എന്താണ് നിങ്ങൾ ലാസ്റ്റ് കഴിച്ചശേഷം തുടങ്ങിയത് ഇത് അത് ഓർക്കുന്നുണ്ടോ ഹോട്ടൽ നിന്നാണോ കഴിച്ചത് അല്ല വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചതാണോ ഓക്കെ ഓക്കെ ഏത് ഹോട്ടൽ നിന്നായിരുന്നു കഴിച്ചത് താങ്കൾ ഓ ശരി ഒരു പക്ഷെ അത് ഫുഡ് പോയ്സണിങ്ങായിരിക്കും നിങ്ങൾ കഴിച്ചതിനു ശേഷം ഓക്കെ അത് ചിലവർക്ക് ചില ഭക്ഷണം ശരീരത്തിന് ഏൽക്കില്ല എന്നു പറയുന്നൊക്കെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കഴിച്ചത് കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളായിരിക്കും ആ നിങ്ങൾ എൻ്റെ ഹെൽത്ത് കെയറിലേക്ക് വന്നാൽ ഞാൻ അതിനു വേണ്ട മെഡിസിൻ എഴുതിത്തരാം നിങ്ങൾ മെഡിക്കൽ സെൻ്ററിൽ നിന്നു പോയി വാങ്ങിച്ചാൽ മതി അത് ഓക്കെ വയറു വേദന എന്തൊക്കെയുണ്ട് പറഞ്ഞത് ഓക്കേ ജലദോഷമൊക്കെ ഉണ്ടോ ഓ ഓക്കെ ഓക്കെ ഓക്കേ അതിനൊക്കെ അതിനൊക്കെയുള്ള മരുന്ന് ഞാൻ വാങ്ങിച്ചു തരാം കേട്ടോ എഴുതിത്തരാം നിങ്ങൾ വാങ്ങിച്ചാൽ മതി മെഡിക്കലിൽ പോയി അത് രണ്ടു ദിവസത്തിൻ്റെ ഡോസേജ് തരാം ഇപ്പം മൂന്നു മൂന്നു നേരമായിട്ട് ഓക്കെ അത് എല്ലാ എല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് എടുക്കേണ്ടത് മെഡിസിൻ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അത് പറഞ്ഞ് എഴുതി തരാം ഓക്കെ രണ്ടു ദിവസത്തിൽ അത് നേരെയാകും മൂന്നു ദിവസമായിട്ടല്ലേ ഉള്ളൂ നിങ്ങൾക്ക് തുടങ്ങിയിട്ട് ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ശരി